കളരികളെക്കുറിച്ച് പറയുകയാണെങ്കില് അതിനെക്കുറിച്ചങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല എന്നാലും അതില് കളരി പഠിപ്പിക്കുന്ന ഒരാളെ അറീ അറിയുന്നത് എന്ന് പറഞ്ഞാല് മുഹമ്മദ് ഗുരുക്കൾ എന്ന് പറഞ്ഞ ഒരാളാണ് അയാള് ഈ കളരി എല്ലാർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ റോൾ മോഡലായിട്ടങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല കളരിയൊക്കെ പഠിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല കാര്യമാണ് പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിലും പേടിക്കാതെ ഇപ്പഴ് സ്ത്രീകൾക്കാണെങ്കിലും പേടിക്കാതെ മും മുമ്പോട്ട് പോകാനൊക്കെ ആണെങ്കില് ആയോധന കലകൾ പരീക്ഷിക്കുന്നത് നല്ല കാര്യമാണ് അതുകൊണ്ട്തന്നെ ഞാൻ അതിന് നല്ലതേ പറയുള്ളൂ അങ്ങനെ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണന്നെ ഞാൻ പറയുള്ളൂ പിന്നെ ആ ആയോധനകള് പഠിപ്പിക്കുന്നത് പല സ്ഥലത്തും ഉണ്ട് ബാംഗ്ലൂര് എല്ലാ സ്ഥലത്തും ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും അതിന് പറ്റിയുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും എല്ലാം ഇപ്പോൾ നടന്നുക്കൊണ്ടിരിക്കുന്നുണ്ട്